ഇപ്പോൾ കോഴി വളർത്തൽ കൃഷിക്കാർക്ക് പെട്ടെന്ന് ഈ ഈ കോഴികൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പെട്ടെന്ന് അങ്ങനെ സാധിക്കാറില്ല മാക്സിമം കോഴി ഇങ്ങനെ ചത്തുപോവുക അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ കോഴിപ്പേൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം വരും അത് മനുഷ്യരിൽ പെട്ടെന്ന് ബാധിക്കും അതിൻ്റെ ആ കുഞ്ഞു കുഞ്ഞു ബാക്ടീരിയാസ് നമ്മുടെ ദേഹത്ത് വന്ന് ചൊറിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും അപ്പം ഇത് അതിൽനിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ആരോഗ്യകേന്ദ്രങ്ങളിൽ കോഴികളെ കൊണ്ട് പോകുന്നത് അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഒന്നെങ്കിൽ അതിന് അഫേർനെസ്സ് ആയിട്ടുള്ള ക്ലാസ്കൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പം അതനുസരിച്ച് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് അങ്ങനെയുള്ള കോഴികൾക്ക് വരാമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് പറ്റും അപ്പം അത് അങ്ങനെത്തെ ഇത് കാണിക്കുമ്പം സിംറ്റംസ് കാണിക്കുമ്പോൾ നമുക്ക് അതിനെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് അതിന് വേണ്ട മെഡിസിനും കാര്യങ്ങൾ എല്ലാം അല്ലെങ്കിൽ വാക്സിൻ എടുക്കുകയാണെങ്കിൽ വാക്സിൻ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും പിന്നെ അത് അല്ലാണ്ട് കോഴികളെ വളർത്താനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് വൃത്തിയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കോഴികൾക്ക് പ്രത്യേകമായിട്ട് ഒരു കൂട് നിർമ്മിക്കാനായിട്ട് നിർമ്മിക്കാനായിട്ട് അത് ഇപ്പോൾ കോഴികൾക്ക് പണ്ട് കാലങ്ങളിലൊക്കെ തടിയിലുള്ള അങ്ങനെയായിരുന്നു തടിയിലുള്ള വീടുകൾ നിർമ്മിച്ച് വീട് പോലെത്തെ കൂടുകൾ നിർമ്മിച്ച് അതിലായിരുന്നു കോഴികൾ ഇപ്പോൾ ഇപ്പം അത് മാറിയിട്ടുണ്ട് സിമൻറ്റ് കട്ടയും അങ്ങനെയൊക്കെ ഉള്ള അപ്പം അതിന് കിടക്കാനായിട്ട് അടിയിൽ എന്താ മരത്തിൻ്റെ പൊടിയുണ്ടല്ലോ മരപ്പൊടി മരപ്പൊടി ഒക്കെ ഇട്ട് അപ്പം അത് മാസത്തിൽ ഒരു രണ്ടുമാസം ഒക്കെ കൂടുമ്പോൾ ഒന്ന് മാറ്റിക്കൊടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയായിട്ട് അങ്ങ് കിടക്കും പിന്നെ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്താതെ പുറത്തോട്ടൊക്കെ ഒന്ന് വിടുകയാണെങ്കിൽ കുറച്ചുകൂടി അവർ കോഴികൾക്കും മറ്റ് ഇത് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ട് നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്നതേയുള്ളൂ വാക്സിൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അതിന് ഇതിന് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഡൗട്ടുകൾ ചോദിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് കോഴി വളർത്തുന്നതിന് കറക്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ എത്ര കോഴികൾക്ക് ഒരു കൂട്ടിൽ എത്ര കോഴികളെ അല്ലെങ്കിൽ കിടക്കാം അങ്ങനെയൊക്കെ ഉള്ള അതിനും കോഴികൾക്കും കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് ഉണ്ട് ഇപ്പം സാധാരണ ഈ അതിൻ്റെ മുട്ടയുടെ തോട് തന്നെ പൊടിച്ച് അതിന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ അപ്പം അതൊരു പുതിയ അറിവായിരുന്നു എനിക്ക് അപ്പം അത് എൻ്റെ പപ്പയുടെയിൽനിന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം അതുപോലെത്തെ അറിവുകൾ ഇങ്ങനെ അറിയാം എന്നുള്ളവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ അതനുസരിച്ച് ഇപ്പം കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് കോഴി ഇപ്പം കോഴികളുടെ തൂവൽ പോവുന്നത് അപ്പോൾ അതിൽനിന്ന് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് ഫുഡ്കൾ ഒക്കെ കൊടുക്കാതെ ആവശ്യത്തിന് ഫുഡ് ഇപ്പം ചില തവിടും ചോർ ഒക്കെ മിക്സ് ചെയ്ത് ചോറ് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് അത് നല്ലതല്ല അപ്പം അത് തവിടും ഇതും കൂടി മിക്സ് ചെയ്തു കൊടുക്കുക അതൊക്കെ എനിക്ക് പപ്പ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പം അതും പപ്പക്ക് മനസ്സിലായത് ഇങ്ങനെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടാണ് അപ്പോൾ അതുപോലെ ഏതെങ്കിലും ആരോഗ്യം കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ തൊഴിലുറപ്പോ അല്ലെങ്കിൽ അങ്ങനെത്തെ ആൾക്കാരുണ്ടല്ലോ മൃഗശാലയും അങ്ങനെത്തെ ഉള്ള അപ്പം അവർ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പരിശീലനങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇപ്പം അതനുസരിച്ച് നമുക്ക് അതിനെ പരിപാലിക്കാൻ പറ്റും ഇപ്പം കോഴിക്ക് കോഴികളൊക്കെ ഇടയ്ക്ക് ചൂടു കൂടിയും അല്ലാണ്ടൊക്കെ മരിച്ചു പോകുന്നുണ്ട് ഒരു കോഴിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് എല്ലാ കോഴികളിലും ബാധിക്കും എല്ലാ കോഴികളും പെട്ടെന്ന് ചത്തുപോവും അപ്പം ആ ചത്തുപോയ കോഴിയെ നമുക്ക് കളയാൻ അല്ലാതെ വേറൊന്നിനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരതനുസരിച്ച് അതിനെ പരിപാലിക്കുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യും